അടുക്കളകളിലും ശുചിമുറികളിലും എലി പാറ്റ തുടങ്ങിയവയുടെ ശല്യം ഒഴിവാക്കാൻ പല വഴികളും നാം ഓരോരുത്തരും സ്വീകരിക്കാറുണ്ട് ഞാൻ ഞാനുൾപ്പടെ ഉള്ള എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വീടുകളിൽ ഇത്തരത്തിലുള്ള ജന്തുക്കളുടെ അതായത് എലിയുടെയും പാറ്റയുടെയും ശല്യം ഉണ്ടാവുന്നത് പൊതുവെ പാറ്റ ശല്യം ഒഴിവാക്കാനായിട്ട് ഞാൻ ചെയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹിറ്റിന്റെ ഹിറ്റ് കമ്പനിയുടെ ഒരു ചോക്ക് കിട്ടും ആ ചോക്ക് നമ്മൾ അടുക്കളയിൽ പല ഭാഗത്തും മൂലക്കും പിന്നെ ഇങ്ങനെ കൂടുതൽ പാത്രങ്ങൾ പാത്രങ്ങളോ തുണികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ആ ചോക്ക് വരച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പാറ്റ കാണാറില്ല പാറ്റകളുണ്ടെങ്കിൽ തന്നെ പാറ്റ ചത്ത് കിടക്കാറുണ്ട് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ പാറ്റ മാത്രമല്ല ഉറുമ്പിനെ വീട്ടിൽ നിന്ന് തുരത്തുവാനും ഈ ഹിറ്റിന്റെ ചോക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എലിയെ എലിശല്യം ഒഴിവാക്കുവാനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും എലിക്കെണി വെയ്ക്കുക എന്ന് തന്നെയാണ് നോക്കാറ് ചെയ്യാറുള്ളത് പിന്നെ എലിവിഷവും ഇടക്കൊക്കെ വെക്കാറുണ്ട് അത്തരത്തിലാണ് ഇത്തരം ജീവികളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ